ആ ഞാൻ ഇന്നലെ വിളിച്ച ക്യാബിൻ്റെ ഡ്രൈവർ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നെ കൃത്യ സമയത്ത് എന്നെ സുരക്ഷിതമായിട്ട് രാത്രിയിൽ വീട്ടിൽ കൊണ്ടെത്തിച്ചു ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ ലേറ്റായതു കൊണ്ടാണ് ക്യാബ് വിളിച്ചത് അദ്ദേഹം വളരെ നല്ല പെരുമാറ്റമായിരുന്നു വളരെ സുരക്ഷിതമായിട്ട് തന്നെ വീട്ടിലിറങ്ങാൻ പറ്റി ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വീണ്ടും ഇദ്ദേഹത്തെ തന്നെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും സാഹചര്യമുണ്ടായാൽ സ്ത്രീകളോട് ഇത്രയും നല്ലതായിട്ടും പെരുമാറുന്ന ഒരു മനുഷ്യനാകുമ്പോൾ നമുക്ക് വിശ്വസ്തതയോടെ ആ വണ്ടിയിൽ കയറാൻ കഴിയും